ഇപ്പോൾ ഞങ്ങളുടെ പ്രദേശത്തുള്ള ആശുപത്രികള് നല്ല രീതിയിലുള്ള ഒരു പുരോഗതി കൈവരിച്ചിട്ടുണ്ട് കാരണം എന്ത് വെച്ച് കഴിഞ്ഞാല് നമുക്കിവിടെ മെയിൻ ആയിട്ടും മൂന്ന് ഹോസ്പിറ്റല്കൾ ആണുള്ളത് കാരണം അവിടെന്ന് വച്ചു കഴിഞ്ഞാല് മിംസ് പിന്നെ ബേബി മെമ്മോറിയല് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അപ്പം നല്ല രീതിയില് ഉള്ള ഒരു കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്താണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അതായത് ഒരു ഏരിയ തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്തു തന്നായിരുന്നു അവിടെയുള്ള പ പല രീതിയിലുള്ള എക്യുപ്പ്മെൻസും കാര്യങ്ങളും ഒക്കെ പുതുതായിട്ട് നമുക്ക് ആക്കി തന്നിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഒരു പുരോഗതി ഒക്കെ ക കൈവരിച്ചിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഡോക്ടറിൻ്റെ അഭാവം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറവാണ് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ കൈവരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കില് നമുക്ക് മെഡിക്കൽ കോളേജ് ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പറയാനുള്ളത് പിന്നെ അവിടെ നല്ല രീതിയിലുള്ള ഒരു പ്രൊഫസർമാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചില സമയങ്ങളിലെ ഇവര് ഹോസ്പിറ്റലിലേക്ക് ഒന്നും വരില്ല അവിടെ വീട്ടില് നിന്ന് നോക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ നോക്കുമ്പോൾ ഇവർക്ക് നല്ലരീതിയിലുള്ള ഒരു ക്യാഷും കാര്യങ്ങളും ഒക്കെ കിട്ടും അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരാണ്ട് ഇവര് വീട്ടിലൊക്കെ ഇരുന്നിട്ടാണ് കൂടുതലായിട്ടും രോഗികളെ ചികിത്സിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഡോക്ടറുടെ ഡോക്ടറുടെ നല്ല രീതിയിലുള്ള ഒരു സഹകരണം കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കില് കൂടുതലായിട്ടും മെഡിക്കൽ കോളേജ് ആണ് കുറച്ചുകൂടെ നല്ലത്